എനിക്ക് പരമ്പരാഗത രീതികളായ ഓയിൽ പെയിന്റും വാട്ടർ കളറും തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇഷ്ടം ഞാൻ അതുതന്നെയാണ് ചെയ്യാറുള്ളതും അത് ചെയ്യാൻ വേണ്ടി എനിക്ക് വളരെ ഈസി ആയിട്ട് തോന്നാറുണ്ട് പക്ഷെ അതേ സമയം പുതിയ പുതിയ രീതികൾ വരുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ആഗ്രഹമുണ്ടാകാറുണ്ട് അതുപോലെ ചെയ്തു നോക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ കൂടുതലും ചെയ്യാറുള്ളത് പരമ്പരാഗതമായ രീതികൾ തന്നെയാണ് പക്ഷെ ഈ ഡിജിറ്റൽ പെയിൻ്റിങ്ങുകളൊക്കെ ചെയ്യുന്ന ആൾ ചെയ്യുന്ന ആൾക്കാരെ അവിടെ പോയി അത് കണ്ട് എങ്ങനെയാണത് എന്തൊക്കെയാണവർ ഉപയോഗിക്കുന്നത് അത് ഏത് രീതിയിലാണ് ചെയ്യുന്നത് എങ്ങനെയുള്ള പെയിന്റുകളാണ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണത് ചെയ്യേണ്ടത് എന്നൊക്കെ ഞാൻ നോക്കാറുണ്ട് അത് നോക്കി നിന്നവരോട് അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കുക അന്വേഷിക്കും എന്നിട്ട് അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ അന്വേഷിച്ച് നോക്കാറുണ്ട് അത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പാരമ്പരാഗത രീതിയിലുള്ള പെയിൻ്റിങ്ങുകൾ ഓയിൽ പെയിന്റും വാട്ടർ കളറെല്ലാം ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം